ഹലോ ഹലോ ആ ആ ഡോക്ടർ അല്ലേ

അർജുൻ ഞാനൊരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു രണ്ടാഴ്ച്ചയിനു മുകളിലൊക്കെയായി തലവേദനയാണ് മെഡിറ്റേഷനൊന്നും ചെയ്തില്ല

ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല തലവേദന മാത്രം ഭയങ്കരമായിട്ടുള്ള തലവേദനയാണ് ഇല്ല ചെക്ക് ചെയ്തിട്ടില്ല ഇത് കാണിക്കണം വിചാരിച്ചു പിന്നെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഇല്ല കാണിച്ചിട്ടില്ല ഞാൻ പിന്നെ മീനങ്ങാടി ഒന്നു പോയി തലവേദനയതിൻ്റെയൊന്ന് കാണിച്ചായിരുന്നു അവിടെ ഒരു ഗവൺമെൻ്റ് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലാണ്ട് കാണിച്ചിട്ടില്ല വൊമിറ്റിംഗൊന്നുമില്ല വൊമിറ്റിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല യോഗയൊന്നും ചെയ്യലില്ല ഈ സമയം കിട്ടുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമെന്തേ ഓക്കെ ഇത് സമയം ഫുൾ ടൈം ഇത് വർക്കിൻ്റെ ഇതായതുകൊണ്ട് ഭയങ്കരമായിട്ട്

ആ വർക്കിൽ കോൺസൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇത് ഈ ഇതായതുകൊണ്ട് ഭയങ്കരമായിട്ട് സീനാണ് ആ ഓക്കെ ആ എന്തെങ്കിലും ഉണ്ടങ്കിൽ ഇതിൽ വിളിച്ചാൽ മതിയോ